തയ്യൽ എനിക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഞാൻ ഒത്തിരി തയ്ക്കുമായിരുന്നു ഇപ്പം കണ്ണിന് ഇച്ചിരി കാഴ്ച്ച കുറവ് ഉള്ളത് കൊണ്ട് ഞാൻ ഇപ്പം അങ്ങനെ തയ്ക്കാറില്ല മെയ്നായിട്ട് ഞാൻ ചുരിദാറും കുട്ടി ഉടുപ്പുകളും നന്നായിട്ട് തയ്ക്കും പിന്നെ പുസ്തകങ്ങൾ തയ്യൽ പുസ്തകങ്ങൾ ഒക്കെ നോക്കി ഈ മെഷീൻ വർക്ക്കളും ചെയ്യും തയ്യൽ പുസ്തകങ്ങൾ ഒക്കെ നോക്കി അതിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് എല്ലാം ഞാൻ തയ്ച്ച് നോക്കും പുറത്തൂന്ന് ഒന്നും തയ്ക്കാൻ കൊടുക്കുക ഇല്ല എന്റെ മകൾക്ക് ഞാൻ ഉഡ്യൂപ്പുകള് എല്ലാം തയ്ച്ച് കൊടുക്കും പുറത്ത് അടുത്ത വീടുകളിൽ എല്ലാം തയ്ച്ച് കൊടുക്കും പൈസക്കൊന്നും അല്ല ചുമ്മാ തയ്ച്ച് കൊടുക്കും പിന്നെ എനിക്ക് എനിക്ക് ഉള്ള ചുരിദാറ്കളും തയ്ക്കും വേറെ ആർക്ക് എങ്കിലും എന്തെങ്കിലും ഡ്രസ്സ്കൾ വേണെങ്കിൽ ഒക്കെ ഞാൻ തയ്ച്ച് കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ വലിയ തയ്യൽക്കാരി ഒന്നുമല്ല എങ്കിലും അത്യാവശ്യം പക്ഷേ തയ്യലിനോട് എനിക്ക് വലിയ കമ്പമാണ് ഞാൻ ഇങ്ങനെ ഈ ഓരോ വെളിയിൽ ഒക്കെ പോകുമ്പോൾ തയ്ച്ചു ഇട്ടിരിക്കുന്ന ഡ്രസ്സ്കളക്കെ കാണുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടമാണ് തൈയ്ൽന്നോട് വലിയ കമ്പമാണ് പക്ഷേ അത് മുന്നോട്ട് കൊണ്ട് പോവാനുള്ള ഒരു സാഹചര്യമൊന്നും നമുക്ക് ഇല്ല അത്കൊണ്ട് മുന്നോട്ട് കൊണ്ട് പോവാൻ ഉള്ള സാഹചര്യം ഇല്ലാത്തോണ്ട് ഞാന് അതിലോട്ടങ്ങനെ കടക്കുവൊന്നൂല്ല പിന്നെ എന്റെ മോൾ എന്തെങ്കിലും ഒരു ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പറഞ്ഞ് കഴിഞ്ഞാൽ അതേ മോഡൽലെല്ലാം ഞാൻ തയ്ച്ച് കൊടുക്കും ഇപ്പം നൂലിനും അതിനൊക്കെ വിലയായത് കൊണ്ട് ഇപ്പോൾ പുറത്തൊന്നും തയ്ക്കാനും പിന്നെ ആ ആരെങ്കിലും എന്തെങ്കിലും തയ്ച്ച് കൊടുക്കാനോ പറഞ്ഞെങ്കിൽ ഞാൻ അത് തയ്ക്കാൻ പറ്റിയില്ലന്ന് പറയും ഞാൻ ഒന്നാമത് കണ്ണിന് കാഴ്ച്ചയില്ല അതുകൊണ്ട് കയ്യിൽ ഇപ്പം ഇങ്ങനെ ഞാൻ ചുമ്മാതെ വീട്ടിൽ ഇരുന്നാലും ഞാൻ എന്തെങ്കിലും ഒക്കെ തയ്ച്ചോണ്ടിരിക്കും എന്തെങ്കിലും ഒക്കെ ഇപ്പം ഒരു പില്ലോ കവറ് തയ്ക്കും പിന്നെ ഈ എന്തെങ്കിലും ഇഷ്ടപ്പെടുന്ന കണ്ട് കഴിഞ്ഞാൽ അത് ഒക്കെ ഞാൻ ഇങ്ങനെ തയ്ക്കാനുള്ള ഒരു ഒരു ടെൻറ്റൻസി എനിക്ക് വരും എല്ലാ ഉടുപ്പുകളും തയ്ക്കും പിന്നെ ഈ മിഷ്യൻ വർക്ക് ചെയ്യും മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കും അങ്ങനെ ഒക്കെ ചെയ്യും മീഡ്യയിലൂടെ കാണുന്ന ഫാഷനുകൾ ഒക്കെ ഞാൻ നോക്കും പിന്നെ ഈ തുണികൾടേം തുണികളുടെ വില ഒക്കെ കാണുമ്പോൾ ഓ ഈ ഫാഷൻ വേണ്ട സാധാ വല്ല ഫാഷനക്കെ തയ്ക്കാം എന്നുള്ള ഒരു മൂഡിലായിരിക്കും ഞാൻ ചിന്തിക്കുന്നത് പിന്നെ തോന്നും ആ ഇതൊന്ന് തയ്ച്ച് നോക്കാം ചിലപ്പോൾ എൻറ്റെ മോൾക്ക് ഇഷ്ടപ്പെടും അങ്ങനെയായിരിക്കും അടുത്ത വീട്ടിൽ ഒരു കുഞ്ഞിക്കൊച്ചുണ്ട് കുഞ്ഞ്ക്കൊച്ചിനെല്ലാം ഞാൻ ഉടുപ്പ് തയ്ച്ച് കൊടുക്കും അവർക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് തയ്ച്ച് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ആരും ഇതുപോലെ കമ്പ്ലൈൻറ്റാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എനിക്ക് ഭയങ്കര പേടിയാണ് പുറത്ത് തയ്ച്ച് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കൊണ്ടായി കഴിഞ്ഞാൽ അവർ പിന്നെ വഴക്ക് പറയുമല്ലോ എന്നോർത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് വേറേ കുഴപ്പം ഒന്നുമില്ല പിന്നെ അത്യാവശ്യം മിഷീൻ വർക്കക്കെ ചെയ്യും ഞാൻ പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷേ ഈ മെഷീൻലേ ഞാൻ അത്യാവശ്യം നന്നാക്കാനും അത് അതിന്റെ കമ്പ്ലൈൻറ്റെന്താന്ന് കണ്ടുപിടിക്കാൻ ക്ഷമയോടെ ഇരിക്കാൻ ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ് ആ വർക്കക്കെ അങ്ങനത്തേത് ഒക്കെ വലിയ ഇഷ്ടമാണ് പിന്നെ ഇപ്പം സമയം ഒന്നുമില്ല കിട്ടുന്ന പിന്നെ ഉള്ള സമയത്ത് ഒക്കെ പണിയാമ്പോക്ന്നത് കൊണ്ട് ഞാൻ വലിയ തയ്യൽലോട്ടങ്ങനെ കടക്കാറില്ല മീഡ്യേലക്കെ ഞാൻ പുതിയ പുതിയ ഫാഷനക്കെ കാണുമ്പം നോക്കും കൊതിയോടെ നോക്കും ഇതക്കെ തയ്ച്ച് തയ്ച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് ബയ്പ്പാ അതിന് അതിന് പറ്റിയ മെഷീൻസ്സൊന്നുവില്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് അധികം കടക്കാറില്ല